വെള്ളം വീട്ടിൽ ശുദ്ധീകരിക്കാനാണെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്നത് ഇപ്പം പൈപ്പിലെ വെള്ളം ആണെങ്കിലും അല്ല ഇപ്പോൾ എൻ്റെ വീട്ടിലെ ബോർവെല്ലിലെ വെള്ളം ആണെങ്കിലും തിളപ്പിച്ച് ഉപയോഗിക്കുവാണ് ചെയ്യാറ് കാരണം അത് അണുക്കളെ കൊല്ലാൻ ഒരുപാട് സഹായിക്കാറുണ്ട് അല്ലാതെ ബോർവെൽ ആണെങ്കിൽ വാട്ടർ ടാങ്കിൽ ക്ലോറിനോ എല്ലാം ആഡ് ചെയ്ത് അതിനെ വൃത്തിയാക്കാം അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം കുടിക്കാൻ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പം ഒരുപാട് വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന വാട്ടർ പ്യൂരിഫയേഴ്സ് അപ്പോൾ നമുക്ക് മിനറൽസും കൂടി നിറഞ്ഞ വെള്ളം കുടിക്കാൻ പറ്റും അപ്പം വീട്ടിൽ നമുക്ക് പിന്തുടരാം എന്നുള്ള കുറച്ച് മാർഗങ്ങൾ വെള്ളം ചൂടാക്കുക എന്നുള്ളതാണ് പിന്നെ ഇതുപോലെ വാട്ടർ ടാങ്കിൽ ക്ലോറിനോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാം